എനിക്ക് മലയാളം കഴിഞ്ഞാൽ പിന്നെ അറിയാവുന്ന ഭാഷ എന്ന് പറയണത് ഇംഗ്ലീഷ് തമിഴ് അങ്ങനെയൊക്കെയാണ് ആ ഭാഷകളിൽ നോക്കണ പറയണം നമുക്ക് സത്യം പറഞ്ഞാൽ തമിഴിന്ന് തമിഴിൻ്റെ കുറച്ച് നമ്മുടെ പാലക്കാട് എന്നു പറയുമ്പോ തമിഴിനെ ആയിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു മലയാള ലാംഗ്വേജ് ആണ് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഉപയോഗിക്കുന്നത് പിന്നെ ഇംഗ്ലീഷ് ഭാഷേന്ന് ഇംഗ്ലീഷ് ഭാഷയെ വച്ച് നോക്കണെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ എളുപ്പം നമ്മുടെ മലയാളം ഭാഷ നമുക്ക് എളുപ്പമാണ് പക്ഷേ ബാക്കിയുള്ളവർക്ക് ഇപ്പം ഇംഗ്ലീഷുകാർക്ക് നമ്മുടെ ഭാഷ കുറച്ച് ടഫ് തന്നെയായിരിക്കും നമ്മളെ പിന്നെ തമിഴ്ന്നായാലും ഇംഗ്ലീഷ്ന്നായാലും സംസ്കൃത്തിന്നായാലും കുറേ വാക്കുകൾ നമ്മള് നമ്മുടെ മലയാളഭാഷ കടം കൊണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മ നോക്കുമ്പോൾ നമുക്ക് രണ്ട് ഭാഷയും നമ്മള് കടപ്പെട്ടിരിക്കുന്നുണ്ട് പിന്നെ വേറെ ആ ഈ പറയണ പോലെ നമ്മുടെ നമുക്ക് മലയാള ഭാഷ പഠിക്കാനും പറയാനും ബാക്കിയുള്ള ഭാഷ പഠിക്കാനൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും പക്ഷെ നമ്മുടെ ഇപ്പൊരു തമിഴ്നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇംഗ്ലീഷുകാര് വന്നിട്ട് മലയാളം പഠിക്കണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളും ആയിരിക്കും നമ്മുടെ സ്ഥലപേരും കാര്യങ്ങളും ഒക്കെ പഠിച്ച് വരുമ്പോഴേക്കും മറ്റേ നമുക്ക് കുറച്ചും കൂടെ നമ്മടെ അവരുടെ വാക്കുകൾ ഉപയോഗിക്കാനുള്ള പ്രൊഫഷൻസി നമുക്ക് കുറച്ച് കൂടുതലായിരിക്കും